ആലപ്പുഴ ജില്ലയിലെ കലവൂർ എന്ന സ്ഥലത്ത് സ്ഥിതി ചെയ്യുന്നതാണ് കൃപാസനം എന്നുപറയുന്ന ആത്മീയ ദേവാലയം ആ കൃപാസനത്തിലെ അച്ചൻ്റെ പേര് ജോസഫ് അച്ചൻ എന്നാണ് അച്ചൻ പല പല അദ്ഭുതങ്ങളും അടയാളങ്ങളും കൃപാസനത്തിലൂടെ അച്ചൻ വഴി നടക്കാറുണ്ട് അച്ചൻ്റെ അടുക്കൽ ചെന്ന് പ്രാർത്ഥിച്ചുകഴിഞ്ഞാൽ നമുക്ക് ഏത് കാര്യവും സാധിച്ചുകിട്ടും എന്നത് കറക്റ്റായിട്ടുള്ള കാര്യമാണ് എങ്കിലും കൃപാസനത്തിൽ ചെന്ന് പ്രാർത്ഥിച്ച് ഉടമ്പടിയെടുത്ത് നമ്മൾ അച്ചന് പറയുന്ന കാര്യങ്ങൾ എല്ലാസ് അച്ചന് പറയുന്നതുപോലെ തന്നെ നമ്മളെല്ലാ കാര്യങ്ങളും ചെയ്യുവാണെങ്കിൽ ഉടമ്പടിയെടുത്ത കാര്യങ്ങൾ നമുക്ക് എത്രയും വേഗം സാധിച്ചുകിട്ടും എന്നുള്ളത് സത്യസന്ധമായ കാര്യമാണ് എനിക്ക് അതിൽ അനുഭവമുണ്ട് ആ അച്ചൻ്റെ ജോസഫ് അച്ചൻ്റെ പ്രസംഗവും ആത്മീയതയും വളരെ നല്ലരീതിയില് തന്നെ മുന്നോട്ട് പോവുന്ന ഒന്നാണ് അച്ചനോട് ആര് എന്ത് കാര്യം പറഞ്ഞാലും സംയമനത്തോടെ അച്ചൻ അത് കേൾക്കുകയും അതിനാവശ്യമായ കാര്യങ്ങൾ നമുക്ക് സാധിച്ചു തരികയും ചെയ്യാറുണ്ട് അതോടൊപ്പം തന്നെ നമ്മള് ഞങ്ങളുടെ പള്ളിയിലെ വികാരിയച്ചൻ ഞങ്ങള്ക്ക് നല്ലൊരു ഉത്തമമാതൃകയായ അച്ചനാണ് അച്ചൻ എല്ലാ കാര്യങ്ങളും ഞങ്ങൾക്ക് നല്ല രീതിയില് തന്നെ പറഞ്ഞുതരാറുണ്ട് പള്ളിയില് നേർവഴിയിലൂടെ നയിക്കുന്നത് അച്ചൻ തന്നാണ് അച്ചൻ പറയുന്ന കാര്യങ്ങളെല്ലാം നല്ല രീതിയിൽ ഞങ്ങൾ പള്ളി ഇടവകക്കാർ അനുസരിക്കുകയും അത് കേൾക്കുകയും ചെയ്യാറുണ്ട് നല്ല കാര്യങ്ങളെല്ലാം തന്നെ പറഞ്ഞു മനസിലാക്കി തരാറുണ്ട് കുട്ടികളോടും നല്ല രീതിയിൽ തന്നെ പെരുമാറുകയും പ്രായമുള്ളവരോടും അതായത് എല്ലാ ജനങ്ങളോടും നല്ല രീതിയില് തന്നെ പെരുമാറണം ഈ പള്ളിയിലുള്ള സംഘടനകള് സാമൂഹ്യ സംസ്കാരങ്ങളുമെല്ലാം അച്ചൻ നല്ല രീതിയില് തന്നെ നടത്താറുണ്ട് ഞങ്ങള്ക്കിന്നൊരു ഒരു ഉത്തമ മാതൃകയായിത്തന്നെയാണ് അച്ചൻ മുന്നോട്ട് കൊണ്ടുപോകുന്നു ഞങ്ങൾ ഇടവകയിലെ എല്ലാ ജനങ്ങളെയും ഒത്തൊരുമയോടും ഒരുമിച്ചുകൂട്ടുവാൻ അച്ചൻ വളരെ അധികം പ്രയാസപ്പെട്ട് സ്നേഹത്തോടുകൂടെ കൂട്ടായ്മയോടുംകൂടെ ഒന്നിച്ചു കൊണ്ടുപോകാനായിട്ട് അച്ചൻ ഞങ്ങളുടെ മുൻ നിരയിൽത്തന്നെ നിൽപ്പുണ്ട് അതുപോലെ തന്നെ സൺഡേ സ്കൂളിലെ കുട്ടികളെ നല്ല രീതിയിൽ തന്നെ അച്ചൻ കാര്യങ്ങൾ പറഞ്ഞു മനസിലാക്കി കൊടുക്കാറുണ്ട് എല്ലാ കാര്യങ്ങളും അവർക്ക് പറഞ്ഞ് മനസിലാക്കി കൊടുക്കാറുണ്ട് ചെയ്യാറുണ്ട് അതോടൊപ്പം യുവദീപ്തി യുവദീപ്തി സംഘടനകളെ മുന്നോട്ട് കൊണ്ടുവരാനായിട്ട് അച്ചൻ കൂടുതൽ കൂടുതൽ ആഗ്രഹങ്ങൾ ചെയ്യുന്നുണ്ട് ചെയ്യാറുണ്ട് അതോടൊപ്പം മാതൃ ജ്യോതിസ് ഈ എല്ലാ കൂട്ടായ്മ എല്ലാ കൂട്ടായ്മകള് ഒന്നിച്ചു ചേർത്ത് നല്ല രീതിയിൽ കൊണ്ടുപോകാൻ അച്ചനെക്കൊണ്ട് അച്ചൻ ചെയ്യാനാകുന്ന എല്ലാ കാര്യങ്ങളും ചെയ്യാറുണ്ട് അതുപോലെതന്നെ കുടുംബകൂട്ടായ്മകൾ എല്ലാ മാസവും അച്ചൻ വിളിച്ചുകൂട്ടാറുണ്ട് എല്ലാ കുട്ടായ്മകളിലുള്ള ആൾക്കാരെയും ഒത്തൊരുമയോടും മുന്നോട്ട് കൊണ്ടുപോകണമെന്നുള്ള ആഗ്രഹത്തോടേ അച്ചൻ എല്ലാവരോടും സംസാരിക്കുകയും എല്ലാ കാര്യങ്ങളും എല്ലാവർക്കും മനസിലാക്കി കൊടുക്കുകയും ചെയ്യാറുണ്ട് അച്ചൻ വന്നതിനുശേഷം ഞങ്ങളുടെ പള്ളിയില് നല്ല പുരോഗമനം തന്നെ ഉണ്ടാകാറുണ്ട് എല്ലാ കാര്യങ്ങളും എല്ലാവർക്കും മനസ്സിലാകത്തക്ക രീതിയിലാണ് അച്ചൻ എല്ലാവരോടും പെരുമാറുന്നത് ആരോടും വഴക്കോ വൈരാഗ്യോ ഒന്നും തന്നെയില്ലാതെ എല്ലാ ജനങ്ങളോടും ഒരേ പോലെ എല്ലാവരെയും ഒരേ കണ്ണുകൾകൊണ്ട് കണ്ട് കൊണ്ട് കൊണ്ടുപോകാനുള്ള ഒരു കഴിവ് ഞങ്ങളുടെ പള്ളിയിലെ വികാരിയച്ചനുണ്ട് വികാരിയച്ചൻ ഒരു ആത്മീയ ഗുരുവായി തന്നെ ഞങ്ങൾ കാണുന്നു